സാർ ഞാൻ ഓൺലൈൻ വഴി ഒരു സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്യുകയും അതെനിക്ക് സമയം ഞാൻ ഉദ്ദേശിച്ച സ്മാർട്ട് ഫോണല്ല ഫോണല്ല ഓഡറ് ആയതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയിട്ടും എനിക്കിപ്പോൾ ആ ഫോണല്ല വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എനിക്കത് വേണ്ടാന്നുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പം അപ്പം അതുകൊണ്ട് ആ ഓഡറ് റദ്ധാക്കിയിട്ട് എനിക്ക് ഞാനുദ്ദേശിക്കുന്ന ഫോൺ തന്നെ എനിക്ക് ആ പ്രോസസ്സിങ് നടക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്ന ഫോൺ തന്നെ എനിക്ക് കിട്ടാനായിട്ടുള്ള സഹായം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു